ഞാൻ ഓൺലൈൻ ഗെയിമിംഗ് ടൂർണമെന്റിൽ ഒക്കെ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട് ഞാന് ഈ കൊറോണയുടെ ടൈമിലാണ് മൈനായിട്ടും ഈ പബ്ജി പബ്ജി ഒക്കെ കളിക്കാൻ തുടങ്ങിയത് പബ്ജി ഫ്രീ വയർ ഫ്രീ ഫയർ ഒക്കെ കളിക്കുമായിരുന്നു പിന്നെ ഫ്രീ ഫയറിനെകാളും എനിക്ക് ഒന്നുംകൂടെ ഇഷ്ടം പബ്ജിയാണ് അത് ആദ്യമൊക്കെ ഇങ്ങനെ ഫോണിൽ ഒക്കെ കളിച്ച് ഇങ്ങനെ ഇൻറസ്റ്റ് ആയി ഇൻറസ്റ്റ് ആയി ഇൻറസ്റ്റ് ആയി പിന്നെ നമുക്ക് അത് വിട്ട് ഒരു കളിക്കാൻ ഉള്ള ഒരു ആയത് ഭക്ഷണം പോലും വേണ്ടാത്ത ഒരു അവസ്ഥയായി തുടങ്ങിയായിരുന്നു കൊറോണ ടൈമിലാണ് നമ്മൾ ഇതൊക്കെ പഠിച്ച് തുടങ്ങിയത് പിന്നെ അത് കഴിഞ്ഞ പാടെ നമ്മള് കൊറോണ കഴിഞ്ഞ പാടെ പബ്ജി അതായത് ഓൺലൈൻ ഗെയിമിംഗ് ടൂർണമെൻറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ ഞാന് പങ്കെടുത്തിട്ടുണ്ട് എനിക്ക് പത്ത് പതിനഞ്ചായിരം രൂപ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇൻറസ്റ്റ് ആയി പിന്നെ എന്ന് വെച്ചിട്ടുണ്ടേൽ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഓൺലൈൻ തന്നെയായിരുന്നു വന്നത് പിന്നെ നല്ലൊരു അനുഭവമായിരുന്നു ഒരുപാട് പേര് അതായത് നമുക്ക് നമ്മൾ ഇങ്ങനെ ഫോണിൽ ഒക്കെ വെറുതെ കളിക്കാൻ ടൂർ ടൂർണമെൻറ്റായി കളിക്കാൻ പറ്റുന്നതും പിന്നെ നമുക്ക് അത് ഒരു വരുമാനം ആയി കിട്ടുന്നതും ഒക്കെ നമുക്ക് ഒരു വലിയ കാര്യം തന്നെയാണ്